ഞാൻ ഓൺലൈ ഓൺലൈൻ വഴി ഒരു കുർത്തിയാണ് ഓർഡർ ചെയ്തത് അത് എനിക്ക് നല്ല വളരെ നല്ല ഇഷ്ടപ്പെട്ട് അതിൻ്റെ കളർ നന്നായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു അതനുസരിച്ചിട്ടാണ് ഞാൻ വില കൂടുതലാണെങ്കിലും ആ കുർത്തി ഓർഡാറു ചെയ്തത് പക്ഷേ അത് ഡെലിവെറി ചെയ്ത് വന്നപ്പോഴേക്കും അത് കളറ് ഞാൻ വിചാരിച്ചത് പോലെ അത്ര നല്ല കളറല്ലായിരുന്നു മങ്ങിയ കളറായിരുന്നു പിന്നെ അതിൽ ശകലം ഡാമേജും ഉണ്ടായിരുന്നു ഡാമേജ് ഞാൻ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് അതിനെ തയ്ച്ച് അത് ഡാമേജ് അറിയാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് അത് പിന്നെ ഞാൻ ഉപയോഗിച്ചു ഉപയോഗിച്ചു അത് ഉപയോഗിച്ചിട്ട് പിന്നെ ഒരു കഴുവത്തിൽ തന്നെ ആ അത് കഴുകിയപ്പോൾ തന്നെ അത് പിന്നെയും അതിന്റെ കളർ ഒരുപാടങ്ങ് മങ്ങി അത് പഴയ ഡ്രെസ് പോലെയായി